ആ പറയൂ ആ എത്ര സെൻറ് സ്ഥലം നിങ്ങൾക്ക് വേണം വീടും സ്ഥലവും കൂടി വേണമല്ലേ ഇരുപത്തഞ്ചു ഇപ്പോൾ നിങ്ങളെവിടെയാണ് നോക്കുന്നതിപ്പോൾ ടൗണിലാണോ അതോ വില്ലേജാണോ റോഡ്സൈഡ് വേണോ

ഇപ്പോൾ അടുത്തു വല്ല സ്കൂളോ ഹോസ്പിറ്റലോ അങ്ങനെന്തെങ്കിലും നോക്കുന്നുണ്ടോ ആ ആ ഇപ്പോൾ വാർപ്പ് വീട് വേണോ അതോ ഓട് വീട് അങ്ങനെ നോക്കുന്നുണ്ടോ ഓട് വീടാണോ വാർപ്പ് വീടാണോ വേണ്ടത് ഇരുപതുസെൻറില് വാർപ്പ് വീട് മതി അതിപ്പം നമ്മുടെ കയ്യില് ഒരു സ്ഥലമുണ്ട് കുറച്ചു ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഒരു മുപ്പതുസെൻറ് ഉണ്ടാവും അതുകുറച്ചു വാർപ്പ് വീട് തന്നെയാണ് പക്ഷെ ഒരു പഴയ മോഡൽ ആണ് ടൈൽസ് ഒന്നുമല്ല കാവിയിട്ട പഴയൊരു വാർപ്പ് വീടാണ് കിണറൊക്കെയുണ്ട് വെള്ളം നല്ല സൗകര്യമുണ്ട് വെള്ളവും മ് പൈപ്പും ഉണ്ട് സെൻറിനിപ്പോൾ ഒരു ഒന്നരലക്ഷം രൂപ സെൻറിനു വേണ്ടിവരും ആ നമുക്കിപ്പോൾ ഒരു നിങ്ങൾക്ക് ഇരുപതുസെൻറ് വേണമെന്നല്ലേ പറഞ്ഞത് അപ്പം നമുക്ക് ഇരുപതുസെൻറായിട്ട് അവര് തരുവോന്നു നമുക്കൊന്നു ചോദിച്ചുനോക്കാം ആ അല്ല പുറകിലോട്ടുള്ള സ്ഥലം അവരെടുത്തോട്ടെ നമുക്ക് ചോദിച്ചുനോക്കാം ഇരുപതുസെൻറില് കൊടുക്കുവോന്നുള്ളതേ ആ അങ്ങനാണെങ്കിൽ ആ നോക്കാം നമുക്ക് ഒരു സ്ഥലമുണ്ട് നമുക്ക് നോക്കാം ഇല്ല ഒരു പത്തുകൊല്ലത്തെ പഴക്കം കാണും ഇപ്പോത്തെ പുതു അതൊരു മൂന്നു മുറിയും അടുക്കളയും ഹാളും ബാത്രൂം പുറത്ത് നിന്നാണ് അകത്തു ബാത്റൂമില്ല ഒരു ആയിരം സ്ക്വയർഫീറ്റുണ്ടാവും വീട് റൂമൊക്കെ അത്യാവശ്യം വലിയ റൂമുകളാണ് ബാത്രൂം പുറത്താണ് അകത്തു ബാത്റൂമില്ല പഴയവീടല്ലേ അതിപ്പോൾ നമ്മള് ചോദിക്കേണ്ടിവരും നമ്മളിപ്പോൾ അതൊരു വാസ്തു നോക്കുന്നൊരാളെ വിളിച്ച് നോക്കേണ്ടിവരും എന്താന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് അറിയില്ല ഒരു റൂമുള്ളത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഏ ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ മരങ്ങളൊന്നുമങ്ങനെ ഇല്ല അപ്പോൾ വീടിൻറെ അടുത്തൊന്നും മരമില്ല കുറച്ചു വിട്ടുതന്നെയാ ഉള്ളത് വീടിനുചുറ്റും മുറ്റമുണ്ട് നടക്കാനൊക്കെയേ ഫുൾ കുറച്ചു ഓപ്പണായ സ്ഥലമാണ് ചെടികളും കാര്യങ്ങളൊക്കെയാണ് മരങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലെ അപ്പോപ്പിന്നെ ഞായറാഴ്ച പോയിനോക്കിയാലോ ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ അവരും ഉണ്ടാവും ഞായറാഴ്ച വൈകുന്നേരത്തു പോകാം നമുക്കൊരു മൂന്നുമണിയാകുമ്പോ ഓണറോട് വരാൻ പറയാം നമുക്കതിന് സ്ഥലം നോക്കാം സ്ഥലം നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരു അഡ്വാൻസൊരു ഒരു രൂപ കൊടുക്കാം പിന്നൊക്കെ പേപ്പറാക്കിയിട്ട് ബാക്കി ചെയ്യാം ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല ഏരിയയാണ് നല്ല സ്ഥലമാണ് ആ അടുത്തു വീടുകളൊക്കെയുണ്ട് ആ ഉണ്ടുണ്ട് കുറച്ചു വിട്ടു വീടുകൾ ഉണ്ട് വീടുകളുണ്ട് മ് ആ കിണറുണ്ട് കിണർ പൈപ്പും ഉണ്ട് പഞ്ചായത്തിൽ നിന്നുള്ളതാണ് ആ അന്നേ വെക്കുവാ ആ ശരിയെന്നാൽ